ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഫാമിലിയായിട്ടാണ് പോയത് അപ്പോൾ അതിൽ പോകുമ്പോയേക്ക് രണ്ട് ബ്രദേഴ്സും ഒരു ഏട്ടത്തിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പെന്ന് വെച്ചാല് ഊട്ടിക്ക് ഊട്ടിയങ്ങോട്ടാണ് പോയത് അപ്പോൾ പോകുമ്പോയേക്കും പെട്രോള് പമ്പിലാണ് ഏകദേശം ടോയിലറ്റ്സും കാര്യങ്ങളെല്ലാം നോക്കിയത് ടോയ്ലറ്റിൽ പോകാൻ ഉണ്ടെങ്കിലും പെട്രോൾ പമ്പിലെ പോകൂ അതേ ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലം നോക്കിയിട്ട് ആ സ്ഥലത്തേക്ക് എത്തുമ്പോയേക്കും ഫുഡ് നോക്കാം അവിടെ അതിനുള്ള ഒരു ഫെസിലിറ്റിസും അവൈലബിലിറ്റിയും ഉണ്ടേൽ മാത്രമെ ഫുഡ് അവിടെ അവിടുന്ന് കഴിക്കു അതായത് ഒരു ഹോട്ടല് എന്ന് നമ്മള് നോക്കുമല്ലൊ എന്തായാലും ഒരു സ്ഥലത്തേക്ക് എത്തുന്നേക്കും മുമ്പേ ഹോട്ടലുണ്ടോ അവ അവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കും എന്തായാലും അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ ചോദിച്ചിട്ട് ഒരു ഹോട്ടലില് കയറും അതേപോലെ അവിടുന്ന് ഫുഡ് കഴിക്കും അതേപോലെ എവയിലബിൾ അല്ലാത്ത സ്ഥലത്തൊക്കെ എന്തായാലും അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എത്താതെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതുവരെ വെയ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ നമ്മള് തന്നെ കയ്യിലെടുത്തു വയ്ക്കുവല്ലോ ഫുഡ് എന്തായാലും അതെടുത്ത് കൊണ്ട് പിന്നെ അതേപോലെ പെട്രോൾ പമ്പ്സ് എന്നു പറയുമ്പോൾ നോർമലി ഇപ്പം എല്ലാ സ്ഥലത്തും പെട്രോൾ പമ്പ്സ് ഉണ്ട് പിന്നെ അതേപോലെ പെട്രോൾ പെട്രോൾ പമ്പ്കള് ഇല്ലാത്ത സ്ഥലത്ത് എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ എന്തായാലും കരുതിക്കൂട്ടി വെച്ചിരിക്കണം കയ്യില് പെട്രോ പെട്രോൾസ് അതിനായിട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളില്ല ഇപ്പോൾ പെട്രോൾ പമ്പ് എന്ന് വെച്ചാൽ ഏകദേശം സ്ഥലത്ത്ക്കെ പെട്രോൾ പമ്പ്സൊക്കെ എവൈലബിൾ ആണ് അതുപോലെ ഫുഡെന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഫുഡ് കിട്ടും നോർമലി കിട്ടും പിന്നെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വെച്ച് വെച്ചായിരിക്കും ഇതിൻ്റെ അവൈലബിൾസൊക്കെ അറിയാൻ പറ്റുന്നത് ഏകദേശം ഇപ്പോൾ ഊട്ടി അങ്ങോട്ട്ന്ന് പറയുമ്പോഴേക്കും ഫുഡൊക്കെ അവൈലബിളാണ് പോകുന്ന വഴിക്കൊക്കെ ചില സ്ഥലത്ത് പെട്രോൾ പമ്പും അതേപോലെ ഫുഡും ടോയ്ലസൊക്കെ കുറവാണ് അങ്ങോട്ട് ഊട്ടി എന്ന് പറയുമ്പോൾ ഊട്ടി ബന്ദിപ്പൂർ അങ്ങോട്ട് ആ വഴി പോകുമ്പഴേക്കും പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് ഫസ്റ്റ് ട്രിപ്പ് ഫാമിലിടെ ഒന്നിച്ചാരുന്നു പിന്നെ സെക്കൻഡ് ടൈം കോളേജിൽ നിന്ന് ഒന്ന് പോയിരുന്നു കോളേജിൽ നിന്ന് പോകുന്നു വച്ചാല് കുറെ സ്റ്റുഡൻസൊക്കെ ഉണ്ടാവും അപ്പോൾ ടോയിൽസിൻ്റെ അവൈലബിലിറ്റി അധികം അവൈലബിലിറ്റി കിട്ടും എന്താന്ന് വെച്ചാല് ഈ ടൂറിന് വരുന്ന ട്രാവൽസ് ട്രാവൽ ടൂറിസ്റ്റിൻ്റെ ബസ് അവർക്കറിയാമലോ എന്തായാലും അപ്പോൾ അവര് എല്ലാ പെട്രോൾ പമ്പിനും പോയി നിർത്തുന്നു നിർത്തിക്കൊണ്ടെയിരുന്നു എത്ര ആർക്കൊക്കെ ടോയിലറ്റിന് അവശ്യ ആവശ്യമുണ്ടായാലും അപ്പപ്പം അവിടെ അവിടെയൊക്കെ നിർത്തുമായിരുന്നു പിന്നെ ഫുഡെന്ന് പറയുമ്പോയേക്കും അവിടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടേ അവിടുന്ന് ഫുഡ് കയിക്കുള്ളു അതേപോലെ റ്റീ ബ്രേക്ക് എന്നുപറഞ്ഞാൽ അവിടെവിടെലും സൈഡ് ആക്കും അതായത് പെട്രോൾ പമ്പ് നിയർ ബൈ പെട്രോൾ പമ്പ്സിൻ്റെ അടുത്ത് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവിടുന്ന് ജസ്റ്റ് സ്നാക്സും കാര്യങ്ങളും കഴിക്കാൻ അവിടുന്ന് കഴിക്കും കഴിക്കാൻ നിർത്തുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ ഫുഡ് ഫുഡ് കിട്ടും എന്തായാലും കിട്ടും ഫുഡ് ഇപ്പോൾ ഏകദേശ നേരത്തെ പറഞ്ഞ അവൈലബിലിറ്റിയാന്ന് അവിടെ ഡെസ്റ്റിനേഷൻ എത്തിയപാട് അവിടെന്ന് എന്തായാലും ഫുഡ് കഴിക്കും പിന്നെ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടൈംമ് കോളേജ് ട്രിപ്പ് പോയെന്ന് വെച്ചാല് വയനാട് ഊട്ടിതന്നെയായിരുന്നു രണ്ടാമതും പോയത് ഫസ്റ്റ് ഡേ വയനാട് വയനാടില് എന്ന് പറയുമ്പോയേക്കും നല്ല സൗകര്യങ്ങള് ഉണ്ട് ഇപ്പോൾ പെട്രോൾസ് പമ്പ്സ് കുറവെന്ന് കുറവാണ് ഒരു ഡെസ്റ്റിനേഷൻ എത്തിയിട്ടാണത്രേ പെട്രോൾ പമ്പ്സ് കിട്ടണമെങ്കില് പിന്നെ അതേപോലെ ഫുഡ് ഫുഡ് എന്ന് പറയുമ്പോഴും അങ്ങനെ അവിടെ ഇവിടെ എല്ലാം ഒന്നും കിട്ടുകയില്ല ഒരു ഡെസ്റ്റിനേഷൻ അവര് വിചാരിച്ച സ്ഥലത്ത് എത്തിയില്ലേൽ എത്തിയില്ലെങ്കിൽ ഫുഡ് കിട്ടുന്നത് ഡൗട്ട് ആണ് അതായത് ആ ഡെസ്റ്റിനേഷൻ മാർക്ക് എത്തണം എന്തായാലും ഇന്ന നേരത്ത് ഇന്ന നേരമാകുമ്പോയേക്കും ആ സ്ഥലത്തെത്തിയിരിക്കണം പിന്നെ ടോയ്ലറ്റ്സ് എല്ലാവർക്കും മെന്നും വുമനും സ്റ്റുഡൻസ് ട്രിപ്പ് എന്ന് പറയുമ്പോഴും ആണുങ്ങൾ ഉണ്ടാവും പെണ്ണുങ്ങൾ ഉണ്ടാവും അപ്പോൾ വുമൺസിനായിരിക്കും അധികം ടോയിലറ്റ്സ് വൊ വേണ്ടിവരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ പെട്രോൾ പമ്പ്സിലും നിർത്തുവായിരുന്നു എല്ലാ പെട്രോൾ പമ്പ്സും അങ്ങനെയല്ല ആർക്കൊക്കെ ടോയിലറ്റ് പോകണമെന്ന് തോന്നുമ്പോയേക്കും ആ പെട്രോൾ പമ്പില് നിർത്തും പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുമ്പോഴേക്കും നല്ല മെമ്മറീസ് ആണ് അത് ഒന്നും കൂടെ കിട്ടുകയില്ല കോളേജ് ട്രിപ്പെന്ന് പറയുമ്പോഴ് അതായിക്കോ ആദ്യത്തെ തന്നെയായിക്കും അവസാനത്തെ കോളേജൊന്നാകെ എല്ലാവരും പോകുന്നത് ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാം ഒന്നിച്ച് പോകുന്നത് അല്ലേ അപ്പോൾ എന്തായാലും അത് തന്നെയായിരിക്കും ഒര് മെമ്മറീസെന്ന് പറയാനായിട്ട് അടുത്തതെന്ന് പറയുമ്പോൾ അതല്ലാതെ അതന്നെയായിരുന്നു രണ്ട് ട്രിപ്പ്സ് കോളേജ് ട്രിപ്പ്സ് അപ്പോൾ ഇതിൽ ഇതിലൊക്കെ പോകുമ്പോഴേക്കും ഫുഡും പെട്രോളും പിന്നെ അതേപോലെ ടോയ്ലറ്റ്സൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം എവെലബിൾ ആണ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങ ഞങ്ങ ഞങ്ങൾ സെറ്റ് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടായിരിക്കും ഇതിനൊക്കെ അവൈലബിലിറ്റി കുറയുന്നത് കൂടുന്നത് മനസ്സിലാക്കാൻ പറ്റും സിറ്റിസൊക്കെ ഇപ്പം ഏകദേശം ബാംഗ്ലൂർ ഒക്കെ പോകുമ്പോയേക്കും എന്തായാലും ട്രാവൽ ചെയ്യുമ്പോൾ ടോയിലറ്റ്സ് ഉണ്ടാവും അതേപോലെ ഫുഡ് ഫുഡ് എന്തായാലും ഉണ്ടാവും പെട്രോൾ പമ്പ്സൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ വിചാരിക്കുന്ന ഈ നോർത്ത് അതായത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ഏതേലും ഒരു ഒരു ഹള്ളി പോലത്ത പ്ലെയിസ് ആണെങ്കില് ഫുഡും കാര്യങ്ങളും എന്തായാലും കയ്യിൽ കരുതി വച്ചിരിക്കണം ഫുഡും പെട്രോളും പെട്രോൾസുമൊക്കെ ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഏകദേശം ഇതിൻ്റെ ഒക്കെ ഒരു അവൈലബിലിറ്റീസൊക്കെ അറിയാൻ പറ്റുന്നത് അപ്പോൾ ഞങ്ങൾസ് ചൂസ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഇതിൻ്റെ അവൈലബിലിറ്റിസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത് നല്ല സ്ഥലമാണോ ചൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് എന്തായാലും മുൻപിൽ മുൻപിൽ വെച്ച് തന്നെ നോക്കാം അതായത് അറി അറിയിക്കാൻ പറ്റുവൊ എവിടെയൊക്കെ എന്തൊക്കെ കിട്ടുന്നുണ്ട് അവൈലബിലിറ്റീസൊക്കെ അറിയാം പറ്റും പിന്നെ അതേപോലെ ഇപ്പോൾ ഗൂഗിൾ മാപ്സും ഉണ്ട് നല്ലവണ്ണം ഹെൽപ്ഫുൾ ആണ് അതുകൊണ്ട് പെട്രോൾ പമ്പ്സും ഫുഡ് ഫുഡ്സൊക്കെ അറിയാൻ പറ്റും എവിടെയാണ് ഉള്ളത് എന്നൊക്കെ പിന്നെ അതേപോലെ ആദ്യത്തെ ട്രിപ്പ് ന്ന് പറയുമ്പോൾ ഫാമിലി ഫാമിലി പോകുമ്പോഴൊക്കെ ഫാമിലി ആയിട്ട് രണ്ട് ബ്രദേഴ്സും ഒരു ഏട്ടത്തിയും അപ്പം ഇവര് വുമൺ ഉള്ളത് കൊണ്ട് എന്തായാലും ബാത്റൂം ഞങ്ങൾ അവിടവിടെ അവിടവിടെ നിർത്തിക്കുവാരുന്നു അതായത് ടോയ്ലറ്റ്സൊക്കെ നല്ല രീതിയില് അവൈലബിലിറ്റി ആയിരുന്നു അന്ന് ഊട്ടിയിൽ പോയപ്പോൾ പിന്നെ ചില ഫോറസ്റ്റ് സൈഡ് ആയിട്ട് പോകുമ്പോഴേക്കും ഈ ടോയിലറ്റ്സൊക്കെ കുറവാണ് എന്തായാലും ഒരു വൺ വൺ അവറൊക്കെ ഇരിക്കേണ്ടിവരും വണ്ടിയില് ഒരു വൺ അവർ വൺ ഹവറ് വണ്ടിയിൽ ട്രാവൽ ട്രാവല് ചെയ്യുമ്പോൾ അങ്ങനെയിരിക്കേണ്ടിവരും അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് ടോയിലറ്റ്സ് ഒന്നും കിട്ടുകയില്ല ഫുഡ്സ് എന്നു പറയുമ്പോൾ ഫുഡ് കയ്യിൽ കരുതി വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് അന്നേരം നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളു അല്ലാതെ ഒരു ഡെസ്റ്റിനേഷൻ എത്താണ്ട് അതുവരെ വെറുതെ ഇരിക്കേണ്ടിവരും ഫുഡ് ഒന്നും കരുതി വെച്ചില്ലെങ്കില് ചൂസ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ എങ്ങനെ ആയിരിക്കുവൊ അതുവെച്ചിട്ടായിരിക്കും ഞങ്ങൾക്ക് കിട്ടുന്ന അവൈലബിലിറ്റീസ് ഒക്കെ അറിയാൻ പറ്റുന്നത് പിന്നെ രണ്ടാമത് ഫ്രണ്ട്സ് മ്മ് കോളേജ് ട്രിപ് എന്ന് പറയുമ്പോയേക്കും അതേപോലെ അത് ടൂർ ആൻഡ് ട്രാവൽസിൻ്റെ അവര് മുൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് എങ്ങനെ സെറ്റപ്പൊക്കെ അവര് ഒര് ഡെസ്റ്റിനേഷൻ എത്തുമ്പോയേക്കും അവര് നമുക്കുള്ള സ്റ്റുഡൻസിനും അതെപോലെ സാറന്മാർക്കുമുള്ള ഫുഡ്സ് ഫുഡ് കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിരിക്കും അവര് അതിനായിട്ടുള്ള ടൈമിന് അവിടെ റീച്ച് ആകുകയും ചെയ്യും അതേപോലെ പെട്രോൾ പമ്പ്സ് എന്ന് പറയുമ്പോയേക്ക് അവരെന്തായാലും ഒറ്റ ഒരു തവണയേ പെട്രോള് പെട്രോള് വണ്ടിക്ക് പെട്രോൾ അടിക്കുകയുള്ള് അപ്പോൾ അത് സ്റ്റാർട്ടിങ് പോയിൻറ്റ് തന്നെയായിരിക്കും അവര് പെട്രോള് എന്തായാലും ഫ്യൂവല് ഫുള്ളാക്കുക പിന്നെ ഫുഡ് പറയുമ്പോൾ എല്ലാ സ്ഥലത്ത് എത്തും പോലെ ഫുഡിന് അങ്ങനെ നിർത്തില്ല അവര് എത്തിയ അവര് വിചാരിച്ച സ്ഥലത്ത് എത്തിയാലെ ഫുഡ് കിട്ടുകയുള്ളു പിന്നെ ഇടയിൽ എവിടെ എങ്കിലും ബ്രേക്ക് കൊടുക്കും ബ്രേക്ക്സ് കൊടുത്താല് വണ്ടി ഇപ്പം നമുക്ക് വേണ്ടത് പോലെ ഫുഡ് കഴിക്കാന് പറ്റും റ്റി സ്നാക്സ് കഴിക്കാൻ പറ്റും ഗ്യാപ്പ് കിട്ടിയാല് പിന്നെ ടൂർ ഇപ്പോൾ ഇപ്പോൾ ടൂർ ടൂർ പോകുമെന്ന് പറയുമ്പോഴേക്കും അവൈലബിൾ ആണ് ഏകദേശം അവൈലബിൾ ആണ് പിന്നെ ഗൂഗിൾ മാപ്പ്സ് ഉള്ളത് കൊണ്ട് ഒന്നുംകൂടി അറിയാൻ പറ്റും എവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് ഫുഡ് കിട്ടും അതേപോലെ പെട്രോൾ പമ്പ്സ് കിട്ടും ടോയിലറ്റ്സ് പെട്രോൾ പമ്പിന് അറ്റാച്ച് ആയിട്ട് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഏകദേശം അവൈലബിൾ ആണ് സംഭവം പിന്നെ